ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഇന്ത്യക്കകത്തും അല്ലേൽ കേരളത്തിന് പൊ അകത്തും പുറത്തും ഒക്കെയായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ജമ്മു ആൻഡ് കശ്മീർ വാരണാസി അതുപോലെതന്നെ മൈസൂർ ബാംഗ്ലൂര് അങ്ങനെ കേരളത്തിൽത്തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മളെടുത്ത് പറയേണ്ട കാര്യം കേരളത്തിൽ നമുക്ക് വയനാട് അതുപോലെതന്നെ തൃശ്ശൂർ കോട്ടയം ഇടുക്കി ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ബ്യു വളരെ ബ്യൂട്ടിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ പോയി എടുക്കുവാണെങ്കിൽ ഫോട്ടോയ്ക്ക് ഒക്കെ ഇച്ചിരി കൂടി ബ്യൂട്ടി ആയിട്ട് കിട്ടും കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്കല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്ലെയ്സസ് നമുക്ക് എടുക്കാനുണ്ട് എൻ്റെ ഒരഭിപ്രായത്തിൽ മെയ്നായിട്ടും ഞാൻ പറയുന്നു കേരളത്തിൽ തന്നെ മാക്സിമം നമുക്കൊരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട് ഫോട്ടോ എടുക്കുന്ന മാത്രമല്ല അതിനോടുപരി നമ്മക്കൊരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് പറ്റും ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഇത് ഇതൊക്കെ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെപ്പോയി നമുക്ക് ഫോട്ടോ ഫോട്ടോ മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് വീഡിയോസ് അതുപോലെതന്നെ മറ്റ് നമുക്ക് എന്താ പറയ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിന്നെയും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ജമ്മു കശ്മീർ അവിടെ ഒക്കെ പോകുവാണെങ്കിലോ ലഡാഖ് ഇതൊക്കെ നമുക്കൊരുപാട് ഫോട്ടോസ് മാത്രമല്ല അതിനോടുപരി ഒരുപാട് ഒരുപാട് യാത്രകളും ഒരുപാട് അനുഭവങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ഒരുപാട് ഫുഡ് ഇതുപോലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്വഴി കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റും ഓരോ സ് രാജ്യത്തേയും അല്ല ഒരു സോറി ഓരോ സംസ്ഥാനത്തെയും ഒരുപാട് ഒരുപാട് വിശേഷപ്പെട്ടതും അതുപോലെതന്നെ വ്യത്യസ്തമായിട്ടുമുള്ള ഭാഷകൾ അതുപോലെതന്നെ ഭക്ഷണങ്ങൾ വസ്ത്രധാരണങ്ങൾ ഇതൊക്കെ നമ്മക്കൊരുപാട് മനസ്സിലാക്കാനും അറിയാനും പറ്റും ഇതൊക്കെയാണ് ഞാൻ മെയ്നായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇപ്പം ഞാൻ പോയതിൽ വെച്ച് ഞാൻ ഇവിടെയൊക്കെയാണ് അതുപോലെതന്നെ ഒരുപാട് ഇടത്ത് ഒരുപാട് വലിയ വലിയ എന്താ പറയാ പ്രതിമകൾ ശിലകൾ ശിവൻ്റെ അത്കൂട്ട് കുറെ കുറെ സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ ചൂസ് ചെയ്യാൻ പറയുവാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഞാൻ പറയും കേരളത്തിന് ഉള്ളിൽ തന്നെ നമുക്കൊരുപാട് അതിന് ശേഷം മതി ഇന്ത്യയ്ക്ക് കേരളത്തിന് പുറത്തേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പറയാനായിട്ട് ഉള്ളു